എനിക്കെന്ന് പറഞ്ഞാൽ കുതിര സവാരി പോകാൻ തന്നെ നല്ലൊരു പേടിയാണ് അതിനെ വെയ്ക്കുന്ന അതിൻ്റെ പുറത്തു നിന്ന് നമ്മൾ വീകുവോ അഥവാ കുതിര നമ്മളെ ചവിട്ടി താഴെ ഇടുമോ അങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ ആയിരുന്നു അങ്ങനെ ഇവിടെ അടുത്ത് പിന്നെ ഒരു കുതിര സവാരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടൊരു എക്സിബിഷനുണ്ട് അവിടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി പോയപ്പോൾ കുതിരേൻ്റെ പുറത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കയറിക്കോ കുഴപ്പമില്ല അതൊന്നും ചെയ്യില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോത്സാഹിപ്പിച്ചു കയറാനായി അങ്ങനെ കയറിയില്ല അവർ കയറിക്കോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഹസ്ബൻഡും അമ്മയൊക്കെ പറഞ്ഞു അങ്ങനെ കയറി കയറിയപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല കയറുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടൊക്കെയുണ്ടായിരുന്നു കുറേ ആൾക്കാർ ആളുകൾ നമ്മളിങ്ങനെ കാണാനും നമ്മളിങ്ങനെ കുതിരേൻ്റെ പുറത്ത് കയറി ഇരുന്ന് പോകുന്ന കാണാനും കുറച്ച് ആൾക്കാർ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര നാണമായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അവരുടെ മുമ്പിൽ നമ്മൾ ജയിച്ച് കാണിച്ച് കൊടുക്കണം എന്നൊക്കെ അങ്ങനെ ഞാനതിൻ്റെ പുറത്ത് കയറി കുറച്ചൊന്ന് സവാരി അടിച്ച് വന്നു അപ്പം നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാ നല്ല രസമായിരുന്നു